പഠിക്കുന്ന സമയത്തൊക്കെ ആണങ്കിലും അസൈൻമെൻറ് ചെയ്യാനും നോട്ട് കംപ്ലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ ഉറക്കമില്ലാതെ പഠിച്ചും എഴുതിയും മറ്റും ഒക്കെയാണ് നമ്മള് ഒരു ഒരു ക്ലാസ് നമ്മള് മുമ്പോട്ട് പഠിച്ച് ഉയർന്നു പോകുന്നത് അതിനൊക്കെ നമ്മള് കഷ്ടപ്പെടുക തന്നെ ചെയ്യുക തന്നെ വേണം ഇപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും വീട്ടിലെ പണികള് തീരണമെങ്കിൽ തന്നെ വളരെ കഷ്ടമാണ് ഈ കഷ്ടാപ്പാടൊക്കെ സഹിച്ചിട്ട് വേണം കുട്ടികളെ നോക്കുക അങ്ങനെയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുറച്ചു സമയം ഒന്ന് വിശ്രമിക്കാൻ എന്ന് വിചാരിക്കും ആ സമയത്തൊക്കെ നമ്മള് വേഗം വീട്ടിലേക്കുള്ള പണികളും എന്തെങ്കിലുമൊക്കെ ഓഫീസില് നിന്നുള്ള പണികളൊക്കെയാണെങ്കിൽ നമ്മള് വേഗം തന്നെ വേഗം ചെയ്തു തീർക്കാൻ നോക്കും ആ ഒരു കഷ്ടപ്പാട് ആ ഒരു കഷ്ടപ്പാടാണ് ഉള്ളത് ആ ഒരു കുറച്ച് നേരം ഉള്ള ഒരു കഷ്ടപ്പാട് ആ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കത് ചെയ്തു തീർക്കണം എന്നിട്ട് നമുക്ക് കുറച്ചുനേരം വിശ്രമിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് തോന്നാറൊക്കെയുണ്ട് ഇതൊക്കെയാണ് സമയത്തിനുള്ളില് ചെയ്തു തീർക്കുന്നതിന് ലക്ഷം നേടുന്നതിനു വേണ്ടിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാര് ആൾക്കാരെ പറ്റി നമുക്കറിയാം